ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ഒന്ന് എട്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ്